ഇപ്പൊൾ അങ്ങനെ നമുക്ക് പറയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ഇത് ഇപ്പം ബുദ്ധമതമൊക്കെ സ്വാധീനിക്കുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് പണ്ട് എന്താ പറയുക ആൾക്കാരൊക്കൊക്കെ അത്യാവശ്യം വ്യായാമവും കാര്യങ്ങളൊക്കെ ഉള്ള ജോലികളൊക്കെ ചെയ്തു കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതായത് അസുഖങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും വന്നുകൊണ്ടിരുന്നില്ല അന്ന് ബുദ്ധമതം പോലുള്ള ഇതൊക്കെയാണ് ഇന്ന് നിലനിൽക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ യോഗ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടി അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊൾ അത് നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ പറയുക അങ്ങനെ ചെയ്തതുകൊണ്ടെന്ന് നമുക്ക് പറയാലോ ബോഡീക്കൊക്കേ അത്യാവശ്യം നല്ല എനർജി കാര്യങ്ങള് ലങ്സൊക്കെ നല്ല രീതിക്ക് തന്നെ പ്രവർത്തിക്കുക ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൃത്യായിട്ട് ലഭിക്കുക അപ്പൊൾ അങ്ങനെ യൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു എന്താ പറയുക ഗുണം തന്നെയാണ് ഉള്ളത് അപ്പൊൾ ഓരോ മതവും അതിന്റെതായ എന്താ ഇപ്പൊൾ ഭൂമിശാസ്ത്രപരമായി ആയിക്കോട്ടെ എന്താ പറയുക പ്രദേശങ്ങൾക്കൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണെങ്കിലും നമുക്ക് യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എളുപ്പാണ് അപ്പൊൾ അത് നല്ലൊരു കാര്യം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടൊള്ളത്